ഇപ്പോൾ ഞാൻ ഒരു സാധനം ഇപ്പോൾ പരീക്ഷണാർത്ഥം ഉണ്ടാക്കുന്നെങ്കിൽ ആദ്യമേ ഉണ്ടാകുന്ന പാകപ്പിഴകളൊന്നും മനസ്സിലാവില്ല വല്ല അതെല്ലാം ഉപ്പുകൂടിയാലോ എരിവ് കൂടിയാലോ അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാകത്തുള്ളൂ എരിവോ ഉപ്പോ ഒക്കെയാണെങ്കിൽ ഒരു ഉരുള കിഴങ്ങ് അരിഞ്ഞിട്ട് വല്ല കറികളാണെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അല്ലാ ഇപ്പോൾ നമ്മൾ ഇപ്പൊരു പായസം വെച്ച് മധുരം കൂടിപ്പോയി ഭയങ്കരമായിട്ട് ചെകിടിക്കും നമുക്കെല്ലാം ഇപ്പോൾ അതിനുള്ള എന്നൊക്കെ വെച്ചു കഴിഞ്ഞാൽ പിന്നെ ഇപ്പം അല്ല സേമിയയാണെങ്കിൽ നമുക്ക് കുറച്ചൂ കൂടി പാലൊക്കെ ഒഴിക്കാം എന്നുള്ള അങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്പുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ പിന്നേ പിന്നെ ഇപ്പോൾ എന്താ നമ്മൾ അല്ലാണ്ട് ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഫസ്റ്റ് ട്രയ്യിൽ ചോറ് വെന്ത് പോയിക്കഴിഞ്ഞാൽ നമുക്കത് പിന്നെ നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റില്ല അത് അടുത്ത് വട്ടം ശരിയാക്കുക എന്നുള്ളതല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് അങ്ങനെ ഒരു പ്രാവശ്യം പറ്റിയിട്ടുണ്ട് റൈസ് നന്നായിട്ട് വെന്ത് പോയി എല്ലാവരും പറയുംപോലെ കഞ്ഞിയും ചിക്കനും പോലെ ആയിപോയി അപ്പം അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അടുത്ത പ്രാവശ്യം അതിൻ്റെ വേവ് നോക്കി നമുക്ക് എന്താണ് എന്ന് വെച്ചാൽ ചെയ്യുക എന്നുള്ളതെ പറ്റുകയുള്ളൂ അല്ലാണ്ട് നമുക്ക് അതിൽ പ്രത്യേകിച്ച് നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല അപ്പം പല പല കസ ഇപ്പോൾ ഇപ്പോൾ എരിവ് കൂടിക്കഴിഞ്ഞാൽ ഈ പറയുംപോലെ ഉരുളക്കിഴങ്ങോ അങ്ങനെയെന്തെങ്കിലുമൊക്കെ ഇടുകയാണെങ്കിൽ എരിവും ഉപ്പും ഒക്കെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് പറ്റും പിന്നെ നമുക്ക് ഇടുമ്പോഴേ നമുക്ക് അങ്ങ് കൂടിപ്പോയി അല്ലെങ്കിൽ അത് ശരിയായില്ല എന്ന് തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് ആ ഭാഗം മാത്രം അങ്ങ് ഇളക്കും മുൻപേ ഇങ്ങ് കോരിയെടുക്കുകയാണെങ്കിലും ഈ പറയുന്ന പ്രശ്നം നമുക്ക് ഒരുവിധം വരെ പരിഹരിക്കാനായിട്ട് പറ്റും